ഞാൻ പുതിയൊരു സിം എടുത്ത് എൻ്റെ പഴയ നമ്പറുകളാണ് ഞാൻ ബാങ്കിൽ കൊടുത്തിട്ടുള്ളത് അതു കൊണ്ട് എൻ്റെ പുതിയ സിമ്മിൻ്റെ നമ്പർ എനിക്ക് കിട്ടുകയും അതു വഴി എനിക്ക് ബാങ്കിൽ കൊടുക്കുകയും അതു കൊണ്ട് എനിക്ക് എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയണം അതു കൊണ്ട് ഞാനെന്തുവാണ് ചെയ്യേണ്ടത് എൻ്റെ പഴയ നമ്പർ മാറ്റിയിട്ട് പുതിയ നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയാ ക്കുകയും വേണം അതുപയോഗിച്ചു കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നതിനും എൻ്റെ പുതിയ ഫോൺ നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം അതിനു വേണ്ടി ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇപ്പോൾ നിലവിലുള്ള നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്തിരിക്കുകയാണ് അതു കൊണ്ടു വേണം ഇനി എൻ്റെ ബാങ്കിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുക അതു കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നു പറഞ്ഞു തരിക പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്തിരിക്കുകയാണ് ആ നമ്പർ പുതിയ നമ്പർ വെച്ച് എനിക്ക് ബാങ്കിലെ കാര്യങ്ങൾ ചെയ്യുകയും വേണം അതു കൊണ്ട് ഞാനെന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി എനിക്കൊന്നു പറഞ്ഞു തരാമോ അതു കൊണ്ട് പറഞ്ഞു തന്നാൽ നല്ല ഉപകാരമായിരിക്കും നിങ്ങൾ എൻ്റെ പഴയ നമ്പർ മാറ്റിയിട്ട് എനിക്ക് പുതിയ നമ്പർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം ആ പഴയ നമ്പർ ഉണ്ട് പുതിയ ഇടത്ത് പുതിയ ഇടത്തെൻ്റെ ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം അതു ആ